ആ ഹലോ നിങ്ങളൊരു ട്രാവലറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ

പത്മനാഭപുരസ്വാമി ക്ഷേത്രം അതാണല്ലോ എൻ്റെ ഏജൻസി സ്കൈബർഗെന്നാണ് അല്ല ആ ഞാന് വേറൊരു സാറിനോടു വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടേ അപ്പോള് നിങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രം കാണുന്നതുകൊണ്ട് എന്തെങ്കിലും യൂസുണ്ടെന്ന് എനിക്കു തോന്നുന്നില്ല നാളെ അപ്പോള് നിങ്ങള് അല്ലല്ല ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകഴിഞ്ഞാല് അല്ല അല്ല അത് ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശ്യം വേറൊന്നും കൊണ്ടല്ല അപ്പോള് എന്താണെന്നു സമയം ഇപ്പോള് നിങ്ങളെന്തായാലും അവിടെ അധിക സമയം ചെലവഴിക്കത്തില്ലല്ലോ അ ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പോള് നിന്ന് അല്ലാ നിങ്ങള് അല്ല അല്ല ഞങ്ങള് വണ്ടി എവിടുന്നാണ് എടുക്കേണ്ടതാദ്യം വണ്ടി നിങ്ങള് ഇപ്പോള് എവിടെനിന്നാണ് ഓക്കെ ഓക്കെ അപ്പോള് അതെതെ അതെ അല്ല അല്ല അതു തന്നെ അപ്പോള് ആ

ആ ഓക്കെ അല്ല അപ്പോള് ഞാന് ഒരു കാര്യം ഒരു സജഷനും കൂടെ പറയാം രാവിലെ അപ്പോള് രാവിലെ ആദ്യം പത്മനാഭപുരം സ്വാമി ക്ഷേത്രത്തില് പോയിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു ഒരു മണിക്കൊക്കെ മതി അത് കഴിഞ്ഞിട്ട് സാറിന് ഏകദേശം രാവിലെ മോര്ണിങ്ങൊരു ഫുഡൊക്കെ കഴിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടും അന്നായത് നമുക്ക് വേണമെങ്കില് ആ അല്ല അല്ല അത് യ്യാന് പറ്റും അല്ല അല്ല അല്ല അല്ല അല്ല ഇത് നമുക്ക് നമുക്ക് പ്രീമിയം നിങ്ങള് പ്രീമിയം കസ്റ്റമറാണ് അതുകൊണ്ടുതന്നെ നിങ്ങള്ക്ക് അതിനുള്ള അവൈലബിൾ ആണ് ആ കുതിര മാളിക ആ അതാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അവിടെനിന്നു നിങ്ങള് ഒരു മണിക്കപ്പോള് പത്മനാഭപുര സ്വാമി ക്ഷേത്രത്തർത്ത് കൂടിപ്പോയാ ഒരു മണിക്കൂറേ ആകത്തുള്ളൂ ഇപ്പോള് നമുക്കിവിടെ കുതിര മാളികയില് ഏകദേശം രണ്ട് മണിക്കൊക്കെ ഓളാകും അപ്പോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണമെങ്കില് സാറിനു കുതിര മാളികയില് കയറാം അല്ല എന്നുണ്ടെങ്കില് അല്ലാതെയും കയറാം അപ്പോള് നിങ്ങള്ക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഇതില് ആ അപ്പോള് അല്ല അല്ല ട്രിവാന്ഡ്രത്ത് ആറു മണിക്ക് എത്തുന്നതായിരിക്കും ബെറ്റര് അതാകുമ്പോള് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളില് കയറാം ആ അതെ അതെ നിങ്ങളുടെ അതെ അതെ അതെ അപ്പോള് എമൗണ്ടിനകത്തുതന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോള് നിങ്ങള്ക്ക് ഒന്ന് രണ്ട് അഡീഷണല് സ്ഥലംകൂടെ തിരുവനന്തപുരത്തു തന്നെ കാണാൻ പറ്റും ഇപ്പോള് നിങ്ങള്ക്ക് ഈ സൈഡ് ഇപ്പോള് കോവളം ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കാണാൻ പറ്റിയില്ലാന്നുണ്ടെങ്കില് അദര് സൈഡ് ഫോറസ്റ്റ് സൈഡ ഉണ്ട് അപ്പോള് നിങ്ങള്ക്ക് അങ്ങോട്ടും പോവാം വേണമെങ്കില് അപ്പോള് അതുകൊണ്ട് തന്നെ നമുക്ക്

ഓ അപ്പോള് നിങ്ങള്ക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കില് കോവളത്താണെങ്കില് നല്ല ഫുഡ് സ്പോട്ടൊക്കെ ഇണ്ട് അപ്പോള് നിങ്ങള്ക്ക് കോവളമായിരിക്കും കുറച്ചൂ ബെറ്ററെന്നു തോന്നുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ടേ അതെ അല്ലല്ല അത് പാക്കേജ് ആണ് അത് ഫുൾ പാക്കേജ് ആണ് നമ്മള് ഉദ്ദേശിക്കുന്നത് അപ്പോള് പാക്കേജിനാണ് ഇതിനകത്തുതന്നെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട് അപ്പോള് നിങ്ങള്ക്ക് എത്ര സ്ഥലം പാക്കേജ് പാക്കേജ് പാക്കേജ് ഒരാൾക്കൊരു രണ്ടായിരം വച്ചാണെങ്കില് നമുക്കൊരു ഏഴു സ്ഥലം വരെ കവർ ചെയ്യാൻ പറ്റും സാർ അല്ല ഒരാൾക്ക് അല്ല അല്ല ഒരാൾക്ക് രണ്ടായിരമെന്നു പറയുമ്പോള് നിങ്ങള് ആലോചിക്കുക ഫുഡുണ്ട് അതിനകത്ത് നമ്മള് സ്ഥലങ്ങളുടെ ടിക്കറ്റ് ടിക്കറ്റുണ്ട് അപ്പോള് കാര് നമ്മള് അത്രയും കാറിലാണു പോകുന്നത് ആ കാർ ലാബോ ആ അതാ ആ അതെ അതെ അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴതിന് അത്രത്തോളം പേയ്മെൻറ് ആവുമല്ലോ അപ്പോള് അതുകൊണ്ടാണ് അപ്പോള് നമ്മുടെ കാറിൻ്റെ നിങ്ങള് കാര് പറഞ്ഞതുകൊണ്ടാണ് അത്രയും പേമെന്റ് വന്നേ ആ അതെയതെ ഒരാൾക്കു രണ്ടായിരമേ ഉള്ളൂ അതെ അതെ അതെ അതെ അഞ്ചു പേര്ക്കും കൂടൊരു പത്ത് ഓക്കെ ഓക്കെ അപ്പോള് നമുക്കു ചെയ്യാം ഓക്കെ ശരി